നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മള് എപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രൊജക്റ്റ് സബ്മിറ്റിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയുമ്പോൾ ഒരുപാട് തലവേദന ആയിരിക്കും ചിലപ്പം നമ്മുടെ ടീം വർക്കിൻ്റെ പ്രശ്നായിരിക്കാം ടീംസ് ടീമില് കുറേ ആൾക്കാര് ചിലപ്പോൾ ഉഴപ്പന്മാരായിരിക്കും ആ ഒരു സീരിയസ്നെസില് കാര്യങ്ങള് ചെയ്യില്ല അപ്പോൾ ആ ടീം കണ്ടക്റ്റ് ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ അതേ പ്ലസ്പോയിന്റിൽ വർക്ക് ചെയ്യാനാഗ്രഹിക്കുന്ന കുറച്ചുപേരുണ്ടാവും നമ്മടെ ഈ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ചുമതലയേൽക്കാന്ന് പറയുന്നന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ചുമതല നിർവഹിക്കാൻ കഴിയുക കറക്റ്റ് സമയത്തിന് ആ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതത്രയും നല്ല ഒരു വൃത്തിയായിട്ടുള്ളൊരു ആൾക്കു മാത്രം പറ്റുന്ന് ഒരു കാര്യമാണ് ആ ഒരു അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള ആൾക്കാർക്ക് മാത്രാണ് അത് ചെയ്യാൻ പറ്റുക അപ്പോൾ എപ്പോഴും നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുക കറക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക അതിലുള്ള മെമ്പേഴ്സിനെയൊക്കെ കറക്റ്റായിട്ട് അവരെ ഓരോ ദൗത്യങ്ങളേല്പിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മള് മുന്നോട്ട് നീങ്ങേണ്ടത്